എൻ്റെ വീട്ടുകാരെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ ആരാണെന്ന് അറിയേണ്ടേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സനോജ് കൃഷ്ണൻ പീപ്പിൾസ് കോളേജിൽ ബി എ മലയാളം രണ്ടാം വർഷം വിദ്യാർഥിയാണ് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് സ്വാഭാവികം ആയിട്ടും സിംഗിൾ ആണ് നിലവിൽ വിവാഹ അഭ്യർഥനയൊന്നും സ്വീകരിക്കുന്നില്ല ആരും വരേണ്ടതില്ല പിന്നെ എൻ്റെ വീട്ടുകാരെ കാര്യമാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരച്ഛനുണ്ട് അമ്മയുണ്ട് അതെല്ലാവർക്കും ഉണ്ട് എന്നാലും പറയുവാണ് പിന്നെ ഒരു ഏട്ടനുണ്ട് ഏട്ടന് എന്നെക്കാളും ഒരു ഒന്നര വയസ്സ് വ്യത്യാസം ഉണ്ടാവും ഭയങ്കര ഷോർട്ട് ആണ് ഏട്ടനെന്ന് വിളിക്കാനൊന്നുമില്ല എന്നാലും ഏട്ടനെന്ന് പറയാം അവൻ അവൻ്റെ കാര്യം തന്നെ ആദ്യം പറയാം അവൻ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് പക്ഷേ നിലവിൽ ജോലിയൊന്നുമില്ല ജോലി തപ്പി കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പം നിലവിൽ ഒരു ഡി ടി പി സെൻറ്ററിൽ ജോലി നോക്കുന്നുണ്ട് പാർട്ട് ടൈം ആണ് പാഷനുമായിട്ട് മുന്നോട്ട് പോവണമെന്ന് തന്നെയാണ് ഉള്ളത് അത് നോക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ ഡയിലി ഉള്ള ക്രയവിക്രയതിനുള്ള പൈസ ഒക്കെ തരുന്നത് അതിൻ്റെ കൂടെ ആക്ടിങ് ഒരു കരിയർ ആയിട്ട് എടുക്കണം എന്നുണ്ട് അഭിനയം ഒരു മുന്നോട്ടുള്ള ഒരു ഇതായിട്ട് എടുക്കണം എന്നുണ്ട് അതിൻ്റെ കൂടെ ഒന്നുങ്കിൽ അഭിനയം അല്ലെങ്കിൽ ജേർണലിസം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് ബി എ മലയാളം വിത്ത് ജേർണലിസം എടുത്തതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മുന്നോട്ട് ഓരോ കാസ്റ്റിംഗ് കോൾ ഒക്കെ വരുമ്പോൾ അതിലേക്ക് പോകാറുണ്ട് പിന്നെ നാടകം അഭിനയിക്കാറുണ്ട് കോളേജ് യൂണിവേഴ്സ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊണ്ട് പോയ നാടകത്തിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ കന്നഡ നാടകത്തിലുണ്ട് കന്നഡ അറിയില്ല പക്ഷേ കന്നഡ നാടകത്തിലുണ്ട് അഭിനയമല്ലേ പ്രധാനം നമ്മൾ ഭാഷ പിന്നെ ഒപ്പിക്കാമല്ലോ അവർ പറഞ്ഞ് തരുമല്ലോ പിന്നെ അച്ഛൻ്റെ കാര്യം പറയുവാണെങ്കിൽ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അമ്മയാണെങ്കിൽ അമ്മ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണ് പിന്നെ അമ്മാവനുണ്ട് വല്ലപ്പോഴുമൊക്കെ വരാറുള്ളൂ ഞാൻ കാണാറൊന്നുമില്ല അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല അങ്ങനെ ഒരാൾ ഉണ്ട് അവിടെ പിന്നെ ആ അത്രയൊക്കെ ഉള്ളു എൻ്റെ വീട്ടുകാരെക്കുറിച്ച് പറയുവാണെങ്കിൽ അത്രയൊക്കെ ഉള്ളു ഒരു സന്തുഷ്ട സമ്പുഷ്ട കുടുംബം കുറച്ച് കുറച്ച് കടങ്ങളും കുറച്ച് കുറച്ച് വഴക്കും ഇത്തിരി സന്തോഷവും ഒക്കെ ഉള്ള ഒരു കുടുംബം പക്ഷേ ഇതുവരെ കുറേ കാലങ്ങളായിട്ട് നമുക്കിതുവരെ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം ഇരി ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല ഒന്നാമത് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ താ ക്ലബ്ബിലൊക്കെ പോയി പതുക്കെയൊക്കെ വീട്ടിലേക്ക് വരൂ അച്ഛനും അമ്മയും നേരത്തെ എത്തിയെങ്കിലും അവിടെ ആയല്ലോ വേറെ ഒന്നുമില്ല അങ്ങനെ ഒരു കുടുംബമാണ് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കാലങ്ങളായി എൻ്റെ കൂടെ ഉള്ള രണ്ട് കൂട്ടുകാരുണ്ട് അവർ എൻ്റെ കൂടെ കൂടിയത് ഒമ്പതാം ക്ലാസിൽ നിന്നാണ് ഒമ്പതാം ക്ലാസ് തൊട്ട് ഇതുവരെ ആ ഒരു ബന്ധം ആ ഒരു ബോണ്ട് അതിനിടയിൽ കുറേ പേർ വന്നു നമുക്കിടയിൽ തന്നെ കുറേ പേർ വന്നു അവരൊക്കെ പോയി പക്ഷേ ഈ നമ്മൾ മൂന്ന് പേർ ഇതുവരെ ഇന്നും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഒരുത്തൻ്റെ പേര് അശ്വിൻ കുമാർ പിന്നെ ഒരു പെൺകുട്ടിയാണ് മൃദുല നമ്മൾ കട്ട ഫ്രണ്ട്സ് അങ്ങനെ ഒരു ബന്ധമാണ് പിന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട് രസ്ന എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ എൻ്റെ കൂടെ കളിച്ച് വളർന്ന് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് അവൾ വല്ലപ്പോഴൊക്കെ ഒന്ന് സ്നേഹിക്കുകയും വിളിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു സുഹൃത്ത് ഉണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ വലിയ കൂടുതൽ വാസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നുമില്ല കുറേ പേരെ അറിയാം എങ്കിലും ഇൻ ഇൻറ്റർനെറ്റ് ഉള്ളത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടുതന്നെ കുറേ ഓരോ ജില്ലയിൽ പോയാലും എനിക്കവിടെ അറിയുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പലപ്പോഴായിട്ട് പോകാറും ഉണ്ട് പക്ഷേ അവരൊന്നും ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്കൊന്നും വന്നിട്ടില്ല കാരണം എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഞാൻ ഒതുങ്ങിക്കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പം കോവിഡ് സമയത്ത് ഉണ്ടായ ആ ഒരു എല്ലാവരെയും അകത്ത് വലിച്ചിരുത്തുന്ന ആ ഒരു ഇതുപോലും എന്നെ അഫക്ട് ചെയ്തിട്ടില്ല കാരണം എന്ന് പറയുന്നത് എനിക്കത് കുഴപ്പം ഇല്ലാത്തൊരു സംഭവമാണ് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു മടുപ്പുണ്ടാക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല അതുകൊണ്ടുതന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും വീട്ടിൽ സ് അതിപ്പോൾ ഫോൺ വേണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിത് വേണമെന്നോ ഒന്നുമില്ല ആ ഞാൻ എന്നെ അവിടെ റൂമിൽ പൂട്ടിയിട്ടാൽ ഞാൻ അവിടെ കിടന്നോളും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ചുരുക്കി പറഞ്ഞാൽ മടിയനാണ് അങ്ങനെ ആണ് ഞാൻ ഓക്കേ അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇത്രയേ ഉള്ളൂ ടോട്ടലി സനോജ് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങ് ഇതാണ് ഇങ്ങനെയാണ് ഓക്കേ